നിർമ്മിക്കുന്ന വസ്ത്രത്തിൻറ്റെ പാറ്റേണും ഡിസൈനും തിരഞ്ഞെടുക്കുന്നത് കൂടുതലും ഓൺലൈനിൽ നോക്കിയാണ് അല്ലെങ്കിൽ കടകളിൽ ചെന്നിഷ്ടമുള്ളത് സെലക്റ്റ് ചെയ്തിട്ടെടുക്കും പിന്നെ ഓരോരുത്തർ പറയുന്ന ഓഡർ അനുസരിച്ചെടുക്കും പിന്നെ കുട്ടികളൊക്കെ അതിനു സഹായിക്കാറുണ്ട് കുട്ടികളൊക്കെ സഹായിക്കാറുണ്ടിതു ചെയ്യാൻ വേണ്ടി വേറാരുമില്ല ആരും ങ്കൂ കുട്ടികളും പിന്നെ ഏതെങ്കിലും മേഘലകൾ നിന്നൊക്കെ ചെയ്യാൻ

ഫോണിൽ നോക്കി കുറേയൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട് ഒത്തിരി തയ്യലുകളും ഫാഷനുകളുമൊക്കെ കാണാമതു കൊണ്ട് പിന്നെ ഓൺലൈനിൽ ഓൺലൈനിൽ നിന്നു വാങ്ങാറുണ്ട് കടകളിൽ നിന്നു വാങ്ങാറുണ്ട് പിന്നേ സുഹൃത്തുക്കളോടും ചോദിക്കാറുണ്ട് തയ്ക്കുന്നവരോട് വരേ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ഓൺലൈൻ ഉറവിടങ്ങളങ്ങനെയില്ല ഏതെ ഏതെങ്കിലും നല്ലതെന്ന് തോന്നുന്നയിടത്തു നിന്ന് എടുക്കുന്നുള്ളതേ ഉള്ളു നല്ലതു പോലെ തയ്ച്ച് പിന്നേ കുട്ടികളൊക്കെ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ സ്വന്തമായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതു കൊണ്ട് അവർ തന്നെ കൂടുതലും പറഞ്ഞു തരും ഏതു തരമാണ് വേണ്ടതെന്നും പാറ്റേണുമൊക്കെ അവർ പറഞ്ഞു തരും കളറും എല്ലാ കാര്യങ്ങളും അവർക്കിന്നറിയാം അവരിന്നെല്ലാം പറഞ്ഞു തരും പിന്നെ നമുക്കിഷ്ടമുള്ളത് നല്ലതെന്നു തോന്നുന്ന ഒരു സ്ഥലത്തു നിന്ന് നമ്മളിതു വാങ്ങുന്നു എന്നിട്ട് എൻറ്റേതായ ജോലികൾ ചെയ്യുന്നു അങ്ങനെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല അതാണ് കടയിൽ പോയി വാങ്ങും പിന്നെ ഓൺലൈനിൽ വാങ്ങും അത്രയേ ഉള്ളു